മഴക്കാലത്തെക്കുറിച്ചും നമ്മുടെ പ്രദേശത്ത് ലഭിക്കുന്ന മഴയെക്കുറിച്ചും പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ഹസ്ബൻഡ് ടിപ്പർ ജീവനക്കാരനാണ് കാരണം മഴ പെയ്താൽ ടിപ്പറിന് ഓട്ടം കുറയുകയും കുടുംബത്തിൽ ദാരിദ്രം ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും കാരണം മഴക്കാലങ്ങളിൽ വണ്ടിയോടി എത്തുക എന്നുള്ളത് നിഷ്പ്രയാസമാണ് റോഡ് തെന്നിപ്പോകുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആണെങ്കിൽ ലോഡ് തട്ടുമ്പോൾ വണ്ടി ബ്ലോക്ക് ആകുന്നു അല്ലെങ്കിൽ വണ്ടി ചെളിയിൽ കുടുങ്ങി പോകുന്നു അങ്ങനെ ഒരു സാധരണ മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അഞ്ചു ലോഡ് എടുക്കുന്ന ഒരു വ്യക്തി മഴയുള്ള ദിവസങ്ങളിൽ രണ്ട് ലോഡിലേക്ക് പോകുന്നു പണിക്കാർക്ക് പണി കുറയുന്നു എന്താ പറയുക വരുമാനം കുറയുന്നു മഴ കൃഷിയെ നശിപ്പിക്കുന്നു കാരണം വിളകൾ വിളകൾ നശിക്കുന്നു വിളകൾ മണ്ണൊലിച്ചു പോകുന്നു മഴ പെയ്യുംതോറും മനുഷ്യർക്ക് ആപത്ത് വെള്ളപ്പൊക്കം പനി നിരവധിയായ പ്രശ്നങ്ങൾ കാണുന്നു മഴ ഇല്ലാത്തപക്ഷം ആണെങ്കിൽ കിണറുകളിൽ വെള്ളം വറ്റുന്നു കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്നു നിരവധിയായ പ്രശ്നങ്ങൾ മഴ അമൂല്യമാണ് മഴ മഴ അധികമായാൽ അമൃതും വിഷമെന്നു പറയുന്നതുപ്പോലെ മഴ അധികമായാൽ അത് ദോഷം മഴ തീരെയില്ലെങ്കിൽ അതും ഭയങ്കര ദോഷം ധാരാളം മഴ ഉള്ളതും ഇല്ലാത്തതും ഒരുപ്പോലെ എന്നു പറയാം മഴ കൂടുംതോറും മനുഷ്യനു ആപത്തു കൂടുന്നു മഴ ഇല്ലാകുംതോറും മനുഷ്യൻ വെള്ളത്തിനായി കഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു മേഖലയാണ് നമ്മുടെ പ്രദേശത്ത് കാണാൻ കഴിയുന്നത്